ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലും നേരിടുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ അതായത് ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആദിവാസി സമൂഹത്തെ ഒക്കെ ഇപ്പോൾ എന്താ പറയുക പഠിക്കാൻ ഒന്നും വിടില്ല പിന്നെ മുസ്ലീംസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസാകാൻ വേണ്ടിട്ട് അപ്പോൾ പതിനാറ് വയസിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും നടന്ന് കൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പതിനെട്ട് പതിനെട്ട് വയസ് ആകുമ്പോഴത്തേക്കും കല്യാണം കഴിപ്പിച്ച് വിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് മുസ്ലിം ഒക്കെ പെടുന്ന അപ്പോൾ അവർക്ക് ഒന്നും പഠിക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരി അപ്പോൾ അതൊന്നും നല്ലരീതിയില് എന്താ പറയുക നടക്കാവുന്ന കാര്യങ്ങളല്ല കാരണം ഇപ്പം ഉള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാം നല്ല രീതിയിലുള്ള ഒരു പഠനവും കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമായി ആവശ്യമനുസരിച്ച് അവർക്ക് വേണമെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പിന്നെ കൊറോണ വന്ന സമയങ്ങളില് ഒക്കെ ഓൺലൈൻ പഠനവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പഠനമെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഒരു വെറുപ്പ് പോലെയൊക്കെയാണ് ഫീലെയ്തൊണ്ടിരുന്നത് കാരണം പഠിക്കാൻ ഓരോ ടൈമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓൺലൈനിൽ തന്നെ ആകുമ്പോൾ അവർക്ക് ബോറടിക്കും അവര് വേറെ എന്തെങ്കിലും ചിന്തയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉള്ളൊരു മാറ്റം കൊണ്ട് അവർക്ക് പഠനം ക എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്ക നേരിടേണ്ടി വന്നിട്ടുണ്ടാകും